എൻ്റെ വീട്ടുകളിൽ ശേ സോറി എൻ്റെ വീട്ടിൽ കന്നുകാലികളില്ല ബട്ട് എൻ്റെ തറവാട്ടിലുണ്ടായിരുന്നു തറവാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന കാലത്ത് അന്നേരം കന്നുകാലികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അപ്പോൾ വളരെ സ്നേഹത്തോടെയാണ് കന്നുകാലികളെ ഒക്കെ വളർത്തേണ്ടത് എപ്പോഴും പിന്നെ താലോട്ടി ചെയ്യുമായിരുന്നു വീട്ടിലിപ്പോൾ ഇപ്പോൾ പട്ടിയും പശുവും പിന്നെ നേരത്തെ കോഴികളുണ്ടായിരുന്നു തറവാട്ടിൽ ഇപ്പോൾ ഇല്ല ഇതിനൊക്കെയാണ് പട്ടിനൊക്കെ വളരെ സ്നേഹത്തോടൊക്കെയാണ് വളർത്തേണ്ടത് വളരെ നന്നായിട്ട് കാത്തുകൊണ്ട് നടക്കണം പട്ടികളൊക്കെ അവയെ കുളിപ്പിച്ചും മറ്റും പിന്നെ എല്ലാ ദിവസം കളിക്കുകയും അതൊക്കെ എല്ലാം ചെയ്യുമാരുന്നു പട്ടികളൊക്കെ കൂടെ പിന്നെ പശുവിനൊക്കെ ആണെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ് സ്കൂളുകള് പോവില്ല അപ്പോൾ വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പശുവിനൊക്കെ എവിടെയെങ്കിലും പുറത്ത് കൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് അവർ പുല്ല് കഴിക്കാനായിട്ട് വേണ്ടി അതിനെ പുറത്ത് കൊണ്ട് എവിടെയെങ്കിലും മരത്തിൻ്റെ ചോട്ടിലൊക്കെ കെട്ടിയിടുമായിരുന്നു പിന്നെ കോഴികളൊക്കെ ആണെങ്കിൽ കോഴികൾ മുട്ട കിട്ടാൻ വേണ്ടിയാണ് വളർത്തിക്കൊണ്ടിരുന്നത് അല്ലാണ്ട് വേറെ ഇങ്ങനെ കാര്യങ്ങൾക്കൊന്നും കോഴീനെ വളർത്താറില്ലായിരുന്നു